ആദ്യം നമ്മൾ എ ടി എം ഏതാണെന്ന് നോക്കുക അപ്പോൾ ഏതു ബാങ്കിൽ പോയിക്കഴിഞ്ഞാലും എ ടി എമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതു ബാങ്കിൻ്റെ ആണെങ്കിലും നമുക്ക് ഇപ്പം ക്യാഷ് കിട്ടും അപ്പോൾ ആ കുട്ടിയോട് പറയേണ്ടത് എങ്ങനെയാണ് വച്ചു കഴിഞ്ഞാൽ എ ടി എമ്മിൽ പോയിക്കഴിഞ്ഞാൽ ആദ്യം എ ടി എമ്മിൻ്റെ അതായത് നമ്മളെ സിമ്മിൻ്റെ ചിഹ്നം വരുന്ന സംഭവം മേലേയ്ക്ക് നിർത്തി ആ എ ടി എമ്മിൻ്റെ ആ ധ്വാരത്തിൽക്കൂടി ഇടുക ഇട്ടു കഴിഞ്ഞിട്ട് നമ്മുടെ നാലക്ക പിൻ ഉണ്ടാവും അതായത് സീക്രട്ട് പിൻ എന്നു പറയും ആ പിൻ അതിനകത്ത് അടിക്കാൻ വേണ്ടി പറയും ആ അടിച്ചു കഴിഞ്ഞതിനു ശേഷം സേവിങ്ങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ ഏതാണെന്നു വച്ചിട്ട് കുട്ടിയോട് പറയുക സേവിങ്ങ്സ് അക്കൗണ്ട് എന്നു പറയുക അപ്പം സേവിങ്ങ്സ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണം പിൻവലിക്കാൻ എത്ര രൂപയാണോ ഉള്ളത് അത് എന്നാൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ അയ്യായിരം ആണെങ്കിൽ അയ്യായിരം ഇത് കൊടുക്കുക അതായത് കൊടുത്ത് കഴിഞ്ഞ ശേഷം പ്രിൻ്റ് വേണോ വേണ്ടയോയെന്ന് ചോദിക്കും ചിലതിൽ ഇപ്പോഴുള്ളതെന്നു പറഞ്ഞാൽ പ്രിൻ്റ് ഒന്നും ഉണ്ടാവില്ല പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ് അടിക്കുക ഇല്ലെങ്കിൽ പ്രിൻ്റ് അടിക്കേണ്ട എന്നിട്ട് നോ എന്നോ എസ്സോ കൊടുത്ത് കഴിഞ്ഞതിനു ശേഷം വെയ്റ്റിംഗ് ഫോർ ക്യാഷ് എന്നു പറഞ്ഞ് കാണിക്കും അത് കഴിഞ്ഞിട്ട് അടിയിലത്തെ ആ ഇതിൽ കൂടി ക്യാഷ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് വരും അതിന് ശേഷം ക്യാഷ് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം എ ടി എം വിടുക എ ടി എമ്മിൻ്റെ ലോക്ക് തന്നെ ഓൺ ഇതായിട്ട് എ ടി എം എടുക്കുക ഇങ്ങനെയാണ് ക്യാഷ് പിൻവലിക്കുന്നത്